എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ് വേടിക്കാൻ വേണ്ടിയിട്ടാണെ ഞാനിപ്പം വിളിക്കുന്നതെ അപ്പം ഞാന് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞപ്പം നിങ്ങളുടെ സ്റ്റോറില് ഒത്തിരി കമ്പനികൾടെ ലാപ്ടോപ്പുകൾ അവൈലബിളാണ് അപ്പം എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എച്ച് പീടെ ഒരു ലാപ്ടോപ് ആണ് നോക്കുന്നത് എനിക്ക് നേരത്തെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അതിന് എന്ന് പറയുന്നത് ഒരുപാട് കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് എനിക്ക് അതിന് വേടിക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമില്ല അപ്പം എച്ച് പീടെ നല്ല മോഡലാണെന്ന് പറയുന്നത് അതുപോലെത്തന്നെ നിങ്ങളുടെ സ്റ്റോറീന്ന് അവൈലബിൾ അയിട്ടുള്ളവർക്കൊക്കെ അത് നല്ല സർവീസ് ആണെന്നും പറയുന്നു അതുപോലെത്തന്നെ വാറണ്ടി ഉണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ എച്ച് പ്പി ടെ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്കൊക്കെ കിട്ടുമായിരിക്കും അതുപോലെത്തന്നെ ഞാൻ വന്ന് വാങ്ങിക്കേണ്ടതുണ്ടോ എനിക്ക് ഓൺലൈനിൽ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഡെലിവറി അവൈലബിളാണോ ഞാനീ ഈ ലാപ്ടോപിൻറ്റെ മോഡല് എച്ച് പി നോക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് എച്ച് പി നല്ല കമ്പനിയാണെന്ന് കേട്ടത് കൊണ്ടും അത് വാറണ്ടി വരുന്നത് കൊണ്ടും ഒരുപാട് ഉപകാരപ്രദമാന്ന് ഒത്തിരി പേർ പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻറ്റെ എച്ച് പീടെ ലാപ്ടോപ്പാ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ സ്റ്റോറീന്ന് ഓൺലൈൻ സ്റ്റോറീന്ന് വേടിച്ചതാണ് അപ്പം എനിക്കതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞ് തരാമോ